പൈപ്പ് മൊത്തത്തില് കംപ്ലയിൻറ് ഉണ്ട് ഇടയില് ഇടയില് വീട്ടില് കുറച്ചേ ആയിട്ടുള്ളൂ പക്ഷേ ടാങ്കിൽ നിന്ന് വെള്ളം വരുന്നതൊക്കെ ഭയങ്കര സ്ലോ ആണ് ഫോഴ്സ് ഇല്ല

ആ ഞങ്ങള് മാക്സിമം തുറന്നൊക്കെ നോക്കി ചെക്ക് ഒക്കെ ചെയ്തു പക്ഷേ എന്താന്നു അറിയില്ല അതുപോലെ ഒരു അവിടെ ലീക്കും ഉണ്ട് ആ ബാക്കിലുള്ള ആ പൈപ്പ് പിന്നെ ഒന്ന് ബാത്റൂമിലേ ബാത്റൂമിലേക്ക് ഇട്ടിരിക്കുന്ന പൈപ്പ് ഇല്ലേ ആ പൈപ്പിൽ ആണെങ്കിൽ വെള്ളം കുറച്ച് പതുക്കെ വരുന്നുള്ളൂ കുറവാണ് വരുന്നത്

ആ അത് ഇപ്പം ആ ഇല്ല നമ്മളിപ്പം ചെയ്ത ഇനി എടുത്ത പൈപ്പിൻ്റെ ക്വാളിറ്റി കുറവാണോ അതോ എവിടെയെങ്കിലും എയർ കൂടിയിട്ട് ഇനി അങ്ങനെ വല്ല പ്രശ്നം ആണോ ആ അതെ അതെ

നമ്മള് കിണറ് ഉണ്ട് അതിനകത്ത് നിന്ന് ഇനി ഇപ്പം കിണറ്റിൽ നിന്ന് കേറ്റേണ്ടി വരുവോ ആ ഓഹ് അതിപ്പോൾ റെഡി ആക്കാൻ എന്താ ചെയ്യുക നമ്മൾക്ക് ആ അല്ല ഇപ്പം നമുക്ക് ചെക്ക് ചെയ്തിട്ട് നോക്കാൻ പറ്റുമോ അതുപോലെ ഒന്ന് രണ്ട് അവിടെ ലീക്ക് വരുന്നുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യണം ആ ആ ബാക്കിലെ ആ പൈപ്പിലും ആ അതെ അതെ ആ പൈപ്പിൽ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ സിങ്കിൻ്റെ അവിടെയും അവിടെ ഒന്ന് നോക്കണം അതായത് നമ്മള് മൊത്തത്തില് സിങ്കിലേക്ക് വരുന്നതും ബാത്റൂമിലേക്ക് വരുന്നതും ഭയങ്കര ഫോർഴ്സ് കുറവ് വെള്ളം കുറച്ച് കുറച്ച് കുറച്ചേ വരുന്നുള്ളൂ ഫോർഴ്സ് ഇല്ല അതൊന്ന് ആ അപ്പം ആ അപ്പം അതൊന്ന് ക്ലീൻ ചെയ്യാൻ ആ അതുപോലെ അതൊന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് ടാങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് പൈപ്പ് ഒന്ന് ചെക്ക് ചെയ്യണം

ഇന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നാളെ വന്ന് നാളെ ചെയ്യാൻ പറ്റുമോ ഇനി ആ അപ്പം ഈ പൈപ്പ് നിങ്ങളൊന്ന് നോക്ക് എന്നിട്ട് നമുക്ക് സാധനം എടുക്കണ്ടേ പൈപ്പ് എടുക്കേണ്ടി വരില്ലേ ആ ഓക്കെ ആ ശരി അന്നേരം വന്ന് നോക്ക് നിങ്ങള് നോക്കിയിട്ട് ഒന്ന് എഴുതി തന്നാൽ ആ ശരി ഓക്കെ ആ സാധനം ഒന്ന് എഴുതി തന്നാൽ മതി ഞാൻ വാങ്ങിച്ച് വയ്ക്കാം അപ്പം നിങ്ങള് നാളെ വന്ന് അത് റെഡി ആക്കാല്ലോ ആ ഈ വഴി ഈ വഴി തന്നെ ആ ശരി ആ ഞാൻ പോയി എടുത്തിട്ട് വരാം ശരി